നമ്മള് അങ്കണവാടികളില് പോയാണ് മലയാള ഭാഷ പഠിച്ചത് അന്ന് അന്നത്തെ കാലത്ത് മണലില് അക്ഷരങ്ങള് എഴുതിച്ചാണ് അക്ഷരങ്ങള് പഠിച്ചത് മലയാള ഭാഷ പഠിച്ചതു കൊണ്ട് വളരെ ഗുണമുണ്ട് ഒന്നാം ക്ലാസ്സ് രണ്ടാം ക്ലാസൊക്കെ ആയി ആയപ്പോള് തന്നെ ആശാന് പള്ളിക്കൂടത്തില് പോയി മലയാളം അക്ഷരങ്ങള് പഠിച്ചതു കൊണ്ട് വായിക്കാനും ചെറിയ ചെറിയ കഥ പുസ്തകങ്ങള് വായിച്ച് തുടങ്ങാനും പത്രം വായിക്കാനും ഒക്കെ ഒരു രസമായിരുന്നു ഇന്നും ആ ഒരു ഇന്ട്രെസ്റ്റോടു കൂടി തന്നെ മലയാളം വായിക്കാറുണ്ട് മലയാള ഭാഷയെ വളരെയധികം ബഹുമാനിക്കുന്നു മായി നമ്മള് എവിടെ ചെന്നാലും നമ്മുടെ കൂടെ എന്നും മലയാള ഭാഷ ഉണ്ടാകും ഒരു മലയാളി ആയതില് ഞാന് വളരെ അധികം അഭിമാനിക്കുന്നു